എനിക്ക് പരമ്പരാഗത രൂപമായ പേനയും പേപ്പറും ഉപയോഗിച്ചെഴുതാനാണ് കൂടുതലും ഇഷ്ടം കാരണം മനസ്സിലെ ആശയങ്ങൾ നമുക്കൊരു പരിധി വരെ നമുക്ക് പേപ്പറിലോട്ട് നല്ലതു പോലെ വൃത്തിയായിട്ട് നമുക്ക് പകർത്താൻ പറ്റും എന്നാൽ മൊബൈലിലോ ലാപ്ടോപ്പിലോ അങ്ങനെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളിൽ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ആശയം ക്ലിയറായിട്ട് ഫുള്ളായിട്ട് അതിനകത്ത് നമുക്ക് പകർത്താൻ പറ്റിയെന്ന് വരികേല കാരണം നമ്മളാ സാങ്കേതിക വിദ്യയിലൂടെ പെട്ടെന്ന് തയ്യാറാക്കി അടിച്ചു കൊടുത്തു വരുമ്പോഴത്തേക്ക് അടിച്ചു കൊടുത്തു വരുമ്പോഴത്തേക്ക് അത് പൂർണ്ണ ഒരു പൂർണ്ണതയിലേക്കോ ഒന്നും വരികയെ വരി വരികയില്ല അതാണ് സത്യം ഞാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കറിയാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പരമ്പരാഗത രൂപമായിട്ടുള്ള പേനയും പേപ്പറുമാണ് എനിക്ക് കൂടുതൽ യൂസ്സായിട്ടുള്ളത് ഇനി ഇന്നത്തെ സമൂഹത്തിൽ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ പുരോഗതി ഉണ്ടാകുന്നത് മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നതും കമ്പ്യൂട്ടർ അങ്ങനെയുള്ള സാങ്കേതിക പരമായിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് പോകുന്നതും പുരോഗമനം ഒക്കെ ഉണ്ടാകുന്നതൊക്കെ ചെയ്യുന്നതൊക്കെ ശരിയാണ് പക്ഷെ ഒരു എഴുത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ ആശയങ്ങളാകട്ടെ എന്ത് കാര്യങ്ങളാകട്ടെ പൂർണ്ണതയിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് ഒരു പേപ്പറും പേനയും ഉപയോഗിക്കുക തന്നെ ചെയ്യണം